ഞാനൊരു സാരി വാങ്ങിയിരുന്നു നല്ല രസമുണ്ടത് കാണാന് വില അധികമൊന്നുമില്ല ഒരു ഇരുന്നൂറ് മുന്നൂറ് രൂപയൊക്കെയേ വില വരുള്ളൂ അതെ നല്ല സാരി തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് കളറൊന്നും പോകുന്നില്ല ആ സാരി ഞാനുടുത്ത് കണ്ടിട്ടെല്ലാവരും ചോദിച്ചു ഇത് എവിടുന്ന് വാങ്ങിയതാണ് ഇതിന് ഇത്ര രൂപ ആയി നല്ല രസമുണ്ട് കാണാൻ എന്നൊക്കെ എല്ലാവരും പറഞ്ഞു അത് വില കുറവാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട് അതിപ്പോള് അലക്കിയിട്ടൊന്നും കളര് പോകുന്നില്ല എല്ലാവർക്കും അതിഷ്ടമായിട്ടുണ്ട് അതുപോലെത്തെ സാരി വേറെ വേറെ കിട്ടുമോ ഇത് ഏത് കടയില്നിന്നാണ് വാങ്ങിച്ചത് എന്നൊക്കെ എന്നോട് പലരും പലരും ചോദിച്ചു അതെനിക്കത് നല്ല ഇഷ്ടമായി ആ സാരി